ഹലോ ആ എടാ ഞാൻ വിളിച്ചതേ ഞാൻ ഇപ്പോൾ ഒരു ട്രിപ്പ് പോവുന്നുണ്ട് മൂന്നാറിലേക്ക് അപ്പോൾ ഈ ടാക്സി യൂബർ ബുക്ക് ചെയ്തിട്ട് പോയി പറഞ്ഞ എങ്ങനെ ഉണ്ടാകും അല്ല ഡ്രൈവർഡേക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അത്യാവശ്യം നല്ല ഡ്രൈവർ ആണോ അവരുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നിനക്ക് എപ്പോഴും പോകുന്നത് അല്ലെ അറിയോല്ലോ ആൾടെ റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനുണ്ട് അതൊന്നു നോക്കി പറയുമോ എനിക്ക് കൊള്ളാവോന്ന് ആ ഒരു രണ്ടു ദിവസത്തെ ട്രിപ്പ് ആയിരിക്കും അപ്പോൾ ഡ്രൈവറുടെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെ ആണ് എനിക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഈ റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിട്ട് നിനക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമൊ എല്ലാം എങ്ങനെ ആണ് ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് ആ നോക്കി പറഞ്ഞാൽ മതി